മത്സ്യബന്ധനം മറ്റേത് തൊഴിലിനെക്കാളും രസകരമാണ് ഇത് കൂട്ടം കൂടിയാതങ്ങ് പോകുന്നെ അപ്പോള് നമ്മള് കളിതമാശകളൊക്കെ പറഞ്ഞ് വള്ളത്തെപ്പോകുമ്പോള് വള്ളവും വെള്ളവുമായിട്ട് നല്ല പരിചയമുള്ളവരാണല്ലോ ഈ പരിപാടിക്ക് പോകുന്നെ ഓരോരുത്തരേം ഓരോ രീതി ഏല്പിക്കുക വള്ളം നോക്കുന്നവര് വേറെ വല ഇറക്കുന്നവര് വേറെ അങ്ങന പല ഗ്രുപ്പിൽ തീർത്താണ് ഈ ഒരു വള്ളത്തേലെല്ലാവരുങ്കൂടെ പോകുന്നത് അപ്പോള് അത് കടലിന്റെയൊ കായലിന്റെയൊ തീരത്തുള്ളവർക്ക് വെള്ളത്തിൽ ഭ ഭയപ്പാടില്ല വള്ളത്തെ പോ പോകുന്നതിനും പേടിയില്ലാത്തതുകൊണ്ട് അവര് അവർക്കേറ്റവും രസകരമായൊരു കാര്യമാണ് അതുപോലെ കരയ്ക്കൂന്ന് കാണുന്നവർക്ക് ഈ വേമ്പനാട്ടുകായലിലൊക്കെയാണെങ്കില് മത്സ്യം പിടിക്കുന്നത് കാണാൻ കരയ്ക്ക് നിന്ന് കാണുന്നവർക്ക് നല്ല രസമുണ്ട് കാരണം വെള്ളത്തില് മുങ്ങി കരിമീന് പിടിക്കുന്ന ആൾക്കാരുണ്ട് വലയിറക്കി വലയ്ക്കകത്ത് മീന് പിടിക്കുന്നതുണ്ട് ഏതാണ്ട് മൂന്ന് ഫേയ്സായിട്ടാണ് വേമ്പനാട്ടുകായലില്നിന്ന് ഈ മത്സ്യം പിടിക്കുന്നത് അത് നമ്മളറിഞ്ഞത്തോളം മറ്റ് തൊഴിലിനേക്കാൾ നല്ലവണ്ണമിങ്ങനെ കൂട്ടംകൂടി ആരും പോകാറില്ല പിന്നെ ഇത് ഇതിൽ കിട്ടുന്ന തൊഴിലില്നിന്ന് നമുക്ക് ഉണ്ടാകുന്ന വരുമാനം അത് ഈ തൊഴിലാളികൾ തുല്യമായി വീതിച്ചെടുക്കുകയാണ് അത് ഈ കൂടുതല് കുറവെന്നുമില്ല ഒരാൾക്ക് ഇന്നതു കൊടുക്കും മറ്റാൾക്ക് ഇന്നതു കൊടുക്കും ഇല്ല നമ്മള് ഏഴ് പേരുണ്ടെങ്കില് ഏഴുപേർക്കും അന്ന് കിട്ടുന്ന ആ മത്സ്യം വിറ്റുകിട്ടുന്നത് എത്രെയാണോ അത് നമ്മുടെ ചിലവു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് തുല്യമായിട്ട് വീതിക്കും പിന്നെ കൂലിക്ക് വള്ളവെ എടുത്തിരിക്കുന്നവരുണ്ട് അവർക്ക് വള്ളക്കൂലി കൊടുക്കണം പിന്നെ ഇന്ധനച്ചെലവുണ്ട് നമ്മിളിപ്പോള് യമഹയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ പെട്രോള് മേടിക്കണം അതിനുള്ള ചെ കുറെ ചെലവുകളുണ്ട് അപ്പോള് അതിനനുസരിച്ച് ചിലപ്പോള് നമുക്ക് മത്സ്യം ധാരാളമായിട്ട് കിട്ടും അപ്പോള് അത് ഒരു രസമാണ് അവന് കിടന്ന് ചാടുന്നതൊക്കെ കാണാൻ എന്തുകൊണ്ടും മത്സ്യബന്ധനം ഏറ്റവും രസകരമായ ഒരു തൊഴിൽ തന്നെയാണ് മറ്റ് തൊഴിലുകളിനെ അപേക്ഷിച്ച് നോക്കും മത്സ്യത്തൊഴിലാളികൾക്കിതൊരു വ്യത്യസ്തമായ അനുഭവമായിട്ടാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്